നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണകൂടം എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നതും നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അതുപോലെതന്നെ മുൻസിപ്പാലിറ്റി മേയർ അതുപോലെ നിരവധി പ്രാദേശിക ഭരണകൂടങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജില്ലയിൽ ഉണ്ട് നമ്മുടെ ജില്ലയിലുണ്ട് കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് കളക്ടർ ആണ് അതുകൂടാതെ രാഷ്ട്രീയ ഭരണകാര്യങ്ങൾ പ്രാദേശിക ഭരണകാര്യങ്ങളും കഴിയുന്നതും പിന്നെ ഇതിൽ നിന്നും ഇതിൽ നിന്നും സർക്കാരിൻ്റെയും പിന്തുണ നമുക്ക് നല്ലതുപോലെ കിട്ടുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജില്ലയിലെ എം എൽ എ എം എൽ എമാരാണ് പി എസ് ശിവകുമാർ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വി കെ മുരളി വാമനപുരം പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ എല്ലാവരും തിരുവനന്തപുരത്തുനിന്നുള്ളവരാണ് തിരുവനന്തപുരത്ത് എം എൽ എമാരാണ് അതുപോലെ തന്നെ പിന്നെ ധാരാളം അവർ ഒരുപാട് നമുക്ക് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആശുപത്രികൾ സ്കൂളുകൾ സ്കൂൾ കൊണ്ട് ആശുപത്രി കൊണ്ടുവന്നു സ്കൂളുകൾ കൊണ്ടുവന്നു അതു കൂടാതെ പ്രൈവറ്റ് ഹെൽത്ത് സെൻററുകൾ കൊണ്ടുവന്നു എണ്ണം കൂട്ടി പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് വികസനങ്ങൾ ആശുപത്രി ആയാലും റോഡ് വികസനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗതാഗതം അങ്ങനെ ഒരുപാടൊക്കെ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആണെങ്കിലും ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു ഇപ്പോൾ തന്നെ കുട്ടികൾക്ക് എല്ലാം നല്ല രീതിയിലുള്ള ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നോക്കുന്നുണ്ട് പഴയകാലത്തെ പോലെ ഒന്നുമല്ല നമ്മൾ നേരത്തെ പഠിച്ച സമയത്തൊക്കെ ആണെങ്കിൽ സ്കൂളിന്ന് ഉപ്പുമാവ് മാത്രമേ തരുള്ളൂ ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ ഉച്ചഭക്ഷണം ഉണ്ട് രാവിലെ ഭക്ഷണം ഉണ്ട് മുട്ടയുണ്ട് പാലുണ്ട് എന്തുകൊണ്ടും നല്ല കാര്യങ്ങളാണ് ഇവരൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് മറ്റു ഉദ്യോഗസ്ഥർ എല്ലാം വളരെ നല്ല നിലയിലാണ് കാര്യങ്ങൾ നോക്കികൊണ്ട് പോകുന്നത്